ഇപ്പോൾ നമ്മള് കൂടുതലായിട്ടും എടുക്കുന്ന ചിത്രം എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നേച്ചർ ഫോട്ടോസാണ് കൂടുതലായിട്ടും എടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നേച്ചർ ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോറെസ്റ്റിലുള്ള കിളികള് പക്ഷികള് അങ്ങനത്തെ പല രീതിയിലുള്ള ഐറ്റംസാണ് നമ്മൾ കൂടുതലായിട്ടും എടുക്കുന്നത് അതാകുമ്പോൾ എന്താ പറയുക നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസും കിട്ടും ഇപ്പോൾ അല്ലാത്ത രീതിയിലുള്ള ഫോട്ടോസ് ഇല്ലെങ്കില് നമ്മള് ടൗണുകളും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ടും അങ്ങനത്തെ ഫോട്ടോസ് എടുക്കാറുണ്ട് ഇപ്പോൾ വണ്ടികള് അങ്ങനെ പല രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് അതില് കൂടുതലായിട്ടും നമ്മള് റീലും ആക്കി കൊടുക്കുന്ന അങ്ങനത്തെ ടൈപ്പും എടുക്കുന്നുണ്ട് നമ്മൾ കൂടുതലായിട്ടും ഇൻസ്റ്റാഗ്രാമിൽ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും എടുക്കുന്നത് ഇപ്പോൾ ഇതൊക്കെ നമ്മള് പോസ്റ്റ് ചെയ്തുകഴിയുമ്പോൾ നല്ല എന്തായാലും നല്ല പോസിറ്റീവ് കംമെന്റ്സും നെഗറ്റീവ് കമെന്റ്സും വരാറുണ്ട് കൂടുതലായിട്ടും പോസിറ്റീവ് കമ്മെന്റ്സാണ് കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ അത് കുടുതലായിട്ടും ഞാന് അങ്ങനെയുള്ള ഫോട്ടോസാണ് ക്യാമെറയിൽ എടുക്കാറുള്ളത് പിന്നെ അല്ലാണ്ട് എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലാണ്ട് ഞാന് എന്താ പറയുക ഇപ്പോൾ കുറച്ച് വരുമാനത്തിനൊക്കെ ആയിട്ട് കൂടുതലായിട്ടും നമ്മള് കല്യാണ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ അതിന് പ്രീ വെഡിങ് അങ്ങനത്തെ പല രീതിയിലുള്ള ഫോട്ടോസും ഞാൻ എടുക്കാറുണ്ട്